ഹലോ ടോപ്പ് ഫോം റെസ്റ്റോറന്റ് അല്ലേ അവിടെ മറ്റേ നമ്മുടെ നെയ്ച്ചോറ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുമോ ഉണ്ടല്ലേ നമുക്ക് നിങ്ങള ഫേമസ് അത് ചിക്കൻ സിക്സ്റ്റി വൺ ആയിട്ടുള്ള നെയ്ച്ചോറും അല്ലേ ഓക്കെ അത് എപ്പോഴും അവൈലബിൾ ആണോ അത് പ്രൊവൈഡ് ചെയ്യണം അല്ലേ നമുക്ക് അത് കുറച്ച് ഹ്യൂജ് ആയിട്ട് വേണ്ടി വരും കാരണം ഞങ്ങൾ കുറച്ച് ആൾക്കാർ അവിടേക്ക് വരുന്നുണ്ട് കോഴിക്കോടേക്ക് അപ്പം ഒരു പതിനഞ്ച് പേർ പേരൊക്കെ ഉണ്ടാവും അപ്പം അവിടെ ഇരിക്കാനും സൗകര്യങ്ങൾ ഒക്കെ അവിടെ ഉണ്ടോ സമയത്തുതന്നെ ഉണ്ടല്ലേ ഓക്കെ നിങ്ങളുടെ അവിടെ നമുക്ക് താമസിക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും സൗകര്യങ്ങൾ കാര്യങ്ങൾ ഉണ്ടോ ആ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അതെ പതിനഞ്ച് പേരും അവിടെത്തന്നെ സ്റ്റേ ചെയ്യാൻ ഉള്ളവരാണ് അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവില്ലേ ഉണ്ടാവും എല്ലാം ഉണ്ടാവും അല്ലേ ഓക്കെ ഉണ്ടാവും അല്ലേ ഓക്കെ പിന്നെ വേറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് അവിടെ ഒരു ഒരാഴ്ച്ച സ്റ്റേ ചെയ്യണം ആ ആ ഒരു അധികം ഒന്നും ഇല്ല ഒരു രണ്ടോ മൂന്നോ പേർക്ക് അപ്പം അതിനുള്ള സൗകര്യം നിങ്ങള അടുത്ത് ഒക്കെ ഉണ്ടാവില്ലേ ഉണ്ടാവും അല്ലേ ഈ നോൺ വെജ് അല്ലാണ്ട് വെജിറ്റേറിയൻ അങ്ങനത്തെ എന്തെങ്കിലും ഫുഡ്ഡ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടോ പ്രൊവൈഡ് ചെയ്യാം അല്ലേ നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രം ആണ് ഈ നോൺ വെജ് കഴിക്കുന്നത് ഉള്ളൂ ബാക്കിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെജ് ആണ് പ്യുവർ വെജ് ആണ് അപ്പം അവർക്ക് കുറച്ച് ആൾക്കാർക്ക് നമുക്ക് മീൽസും പിന്നെ മീൻകറി അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഐറ്റംസ് ഇങ്ങള ഷോപ്പിൽ ഇല്ലേ ഇതിൽ ഇല്ലേ റെസ്റ്റോറന്റിൽ ഇല്ലേ ആ ഈ കരിമീൻ ഓക്കെ ഓക്കെ ഈ കരിമീൻ ഫ്രൈ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ അവിടെ ഉണ്ടോ ആ ഐറ്റംസ് ഉണ്ടല്ലേ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ മറ്റന്നാൾ ആണ് വരുന്നത് അപ്പം മറ്റന്നാൾ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് എല്ലാം റെഡി ആക്കി തരുവാണെങ്കിൽ വളരെ ഉപകാരം ആയിരിക്കും ഓക്കെ എന്നാൽ ഞങ്ങൾ മറ്റന്നാൾ വരാം എന്നാൽ ഓക്കെ ഓക്കെ ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്യാം എന്നാൽ ഓക്കെ